ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായിട്ടും മെച്ചപ്പെട്ട നല്ല രീതിയിലുള്ളൊരു ജോലി ലഭിക്കണമെങ്കിൽ പി എസ് സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ പി എസ് സിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇപ്പം മൂന്ന് നാല് എക്സാം കാര്യങ്ങളൊക്കെ ഉള്ളതു കൊണ്ട് ഭയങ്കര പാടാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്കും അപ്പം അപ്പം കൂടുതലായിട്ടും നമ്മുടെ ഏരിയയിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ കച്ചവടം അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്കാണ് കൂടുതലായിട്ടും ആൾക്കാർ പോകുന്നത് ഇപ്പം മിഠായിത്തെരുവിലാണെങ്കിൽ ഇഷ്ടം പോലെ പിള്ളേർ കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് എന്താ പറയുക കച്ചവടമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് എന്താ പറയുക ഒരു വഴിച്ചിലവിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പിള്ളേർ അവിടെയൊക്കെ പോയിട്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഡ്രസ്സ് അങ്ങനെ നമ്മളിപ്പപ്പോൾ അതിലെ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം അവരൊക്കെ നല്ല ഉഷാറായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ എന്താ പറയുക ഒരു കസ്റ്റമർ എങ്ങനെയാണോ വിളിക്കേണ്ടത് അതേ പോലെയൊക്കെ നല്ല രീതിയിൽ വിളിക്കുന്നതാണ് അപ്പം നല്ലൊരു തൊഴിൽ കിട്ടണമെങ്കിൽ എന്താ പറയുക ഇപ്പം നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം കുറേ ആൾക്കാർ ഇങ്ങനത്തെ തൊഴിൽ മേഖലയിലേക്കാണ് കൂടുതലായിട്ടും പോകുന്നത് കടയിൽ നിൽക്കുക അങ്ങനത്തെ തൊഴിൽ മേഖലയിലേക്കാണ് കൂടുതലായിട്ട് ആൾക്കാർ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം